ഇന്ത്യൻ ഐഡിയെൽ എന്ന റിയാലിറ്റി ഷോ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ അത് ആരും കണ്ടിട്ടില്ല അതിൽ ആളുകളെ കുറിച്ച് എനിക്ക് അറിയത്തും ഇല്ല അതുകൊണ്ടുതന്നെ ഞാൻ മലയാളത്തിലുള്ള പല പല റിയാലിറ്റി ഷോകൾ കണ്ടിട്ടുണ്ട് അതിലൂടെ വളർന്ന് വന്ന ഒരുപാട് സംഗീത ആളുകൾ എനിക്ക് അറിയാം അവരുടെ സംഗീത ശൈലികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഐഡിയാ സ്റ്റാർ സിങ്ങർ പോലെയുള്ള റിയാലിറ്റി ഷോകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിലൂടെ വളർന്ന് വന്ന സമൂഹത്തിൽ വിജയിച്ച ഒരുപാട് ആളുകളുമുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ ആ ഷോവിലൂടെയൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു അതൊക്കെ ഞാനും എൻ്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് റിയാലിറ്റി ഷോകൾ എന്നത് പരിശീലനത്തിലൂടെ വളർന്ന് വന്നവരാണ് അതിൽ ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും സംഗീതമെന്ന കല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അപ്പം ആ കലയെ നാം എല്ലാവരും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ കലകളെ നാം ഓരോരുത്തരും വേണം മനസ്സിലാക്കേണ്ടത് അവർക്ക് ഓരോരുത്തരുടയും ജീവിതങ്ങൾ അവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലുള്ള അവരുടെ അവരുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഞാൻ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മെച്ചപ്പെട്ട പാട്ടുള്ളവരെ എൻ്റെ റോൾ മോഡൽ ആയി ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട് കെ എസ് ചിത്ര എന്ന പാട്ടുകാരി എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പുള്ളിക്കാരികളുടെ ആ വിനയം ആ പുള്ളിക്കാരിയുടെ പാടുന്ന ശൈലികളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പുള്ളികാരി കാണണമെന്ന് ഞാൻ വളരെയധികം ജീവിതത്തിൽ ആഗ്രഹിക്ക ലക്ഷ്യം വെയ്ക്കുന്ന ആളാണ് എന്തെങ്കിലും കാണാൻ ഇപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ എൻ്റെ തുടർന്നുള്ള ജീവിതം എത്ര നാൾ കാണുമെന്നോ എത്ര നാളെൻ്റെ മുൻപിൽ ഉണ്ടാവുമെന്നും എനിക്കറിയില്ല പക്ഷെ ഉള്ളയിടത്തോളം കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ പുള്ളിക്കാരിയെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് പുള്ളിക്കാരിയുടെ മകളുടെ വേർപാട് എല്ലാവർക്കും വളരെ വേദനാചരികമാണ് അതുപോലെത്തന്നെ എൻ്റെ കുട്ടിക്കാലത്തെല്ലാം പുള്ളിക്കാരിയുടെ മകളുടെ വേർപാട് അന്ന് എന്നെ എന്തോ പുള്ളിക്കാരിയുടെ വിഷമങ്ങളും പുള്ളിക്കാരിയുടെ ഫോട്ടോവിൽ കണ്ടപ്പോൾ എൻ്റെ എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിരുന്നു കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ സ്വന്തം ഒരു അമ്മയെ പോലെ എൻ്റെ ജേഷ്ഠത്തിയെ പോലെയാണ് ഞാൻ പുള്ളിക്കാരിയെ കണ്ടിട്ടുള്ളത് പുള്ളിക്കാരിയുടെ ജീവിതശൈലി എനിക്ക് വളരെയധികം ഇഷ്ടമാണ് മറ്റുള്ളവരുടെ സംസാരിക്കുന്ന ആ ശൈലി മറ്റുള്ളവരോട് എളിമപ്പെട്ട ആ രീതികളെല്ലാം വളരെയധികം ആകർഷണം തന്നെയാണ് പുള്ളിക്കാരി എന്താണ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നത് ചെയ്യുക അതുപോലെ യേശുദാസ് പുള്ളിക്കാരനും പുള്ളിക്കാരിയുടെ മക്കൾ പുള്ളിക്കാരിയുടെ സംസാര ശൈലികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും രീതികൾ വ്യത്യസ്തങ്ങളാണ് അവർ എല്ലാവരും പല പല രീതിയിലുള്ള പാട്ടുകൾ പാടിയിട്ടുമുണ്ട് ആ പാട്ടുകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നതാണ് സംഗീതത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നാം നൽകേണ്ടതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണ് ഉള്ളത് ആ കഴിവുകളെയെല്ലാം മനസിലാക്കാൻ നാം ശ്രമിക്കണം അത് മനസിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം സംഗീതമെന്ന കലയെ നഷ്ടപ്പെടുത്താതെ അതിനെ മുന്നോട്ട് പിടിക്കണമെന്ന എൻ്റെ ആഗ്രഹം എൻ്റെ അച്ഛനും അമ്മയും എന്നെ യാതൊരുവിധ നിരുസാഹപ്പെടുത്തിയിട്ടുമില്ല സ്കൂളുകളിലെ കലോത്സവങ്ങളിലായാലും പങ്കെടുപ്പിക്കാൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് അതിന് ഓരോന്നും ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ച് തരികയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നെ കൊണ്ട് പോവുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം പള്ളിയിൽ നിന്ന് പോയ ലളിതഗാന മത്സരത്തിൽ എനിക്ക് ലഭിച്ച പ്രൈസ് എനിക്ക് മറക്കാൻ കഴിയാത്ത അതിനു കാര്യം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ എനിക്കത് ലഭിച്ചു അതെനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു നമുക്ക് ലഭിക്കുമെന്ന് നാം വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാറുണ്ട് ആ ലഭിക്കുന്ന ഓരോന്നിനെയും കൈവിടാതെ നാമെന്നും മുന്നേറാൻ ശ്രമിക്കുക അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം